ഹലോ ആ എന്താണ് സാറേ

ആ ജിബിൻ എന്ന് പറയുന്ന ആൾ എറണാകുളത്ത്ന്ന് ആ ഇവിടെ നമുക്ക് സാൽമൺ ഉണ്ട് പ്രോൺസ് ഉണ്ട് പിന്നെ ക്രാബ്സ് ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ കരിമീൻ ആലപ്പുഴ കരിമീൻ അങ്ങനെ പിന്നെ നാടൻ ഐറ്റംസ് വരുന്നുണ്ട് ആ ആ സാൽമണ് നല്ലതാണ് പക്ഷേ വിലയാണ് അതിപ്പം

ആ ഉണ്ട് ഉണ്ട് അതൊണ്ട് പക്ഷേ അതിനേക്കാട്ടും അതിലും നല്ലത് നമുക്ക് സാൽമൺ ആയിരിക്കും വറക്കാൻ അങ്ങനെ ബാച്ചിലേഴ്സ് പാർട്ടിക്കും അങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ വറക്കാൻ നല്ലത് സാൽമൺ ആയിരിക്കും ആ സാൽമൺ പ്രോൺസ് ക്രാബ്സ് ഇങ്ങനെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ നല്ലതായിരിക്കും വറക്കാൻ റോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊഴുവാന്നൊക്കെ പറയുമ്പോൾ വീടുകളിലൊക്കെ ഉപയോഗിക്കും ഫംഗ്ഷൻസിന് അങ്ങനെ കൊഴുവേ ഒന്നും ഉപയോഗിക്കാറില്ല ആരും

അതെ അതെ അതെ

ആ ഓരോ ഓരോ കിലോ മതിയോ ആ ഒക്കെ ഒക്കെ ഞാൻ ചെയ്തു വെച്ചേക്കാം നമുക്ക് സപ്പറേറ്റ് ചെയ്യണോ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണോ അതോ എല്ലാം കൂടെ ഒരുമിച്ചിടണോ എങ്ങനെ ആ സപ്പറേറ്റാ ക്ളീൻ അല്ല അങ്ങനല്ല നമുക്ക് ക്ലീൻ ചെയ്യണോ അതോ നിങ്ങൾ ക്ലീൻ ചെയ്ത വോ നിങ്ങളുടെ ആവശ്യത്തിന് ആ ഒക്കെ അതാണ് ഞാൻ ചോദിച്ചത് കാരണം ചില ആൾക്കാർ ക്രാബ്സ് റോസ്റ്റ് ചെയ്യും ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കളഞ്ഞിട്ടവിടെ വരുമ്പം പിന്നെ ഇത് തൂക്കത്തിന് വ്യത്യാസം തോന്നുന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും അപ്പം ഉള്ളതിൽ മുഴുത്ത ക്രാബ്സ് നോക്കി ഇട്ടേക്കാം അപ്പം ഇപ്പം സാൽമണ് ഇച്ചിരി റേറ്റ് കൂടുതലാണ് കിലോ വരുമ്പോഴ്ത്തേക്കും ഒരു എണ്ണൂറ് രൂപ അടുത്ത് വരും

ആ ഒക്കെ അപ്പം സാൽമൺ ഒരു കിലോ പ്രോൺസ് ഒരു കിലോ പിന്നെന്താണ് ക്രാബ്സ് ഒരു കിലോ ഓക്കെ നമുക്ക് എങ്ങനെ ഹോം ഡെലിവറി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വന്ന് ചെയ്തു തരാം പക്ഷേ ഈ അത് വലിയ ഓർഡർ ആയിരുന്നു ഇത് ചെറിയ ഓർഡറായത് കൊണ്ട് നമുക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അന്ന് അഞ്ച് കിലോ അഞ്ച് കിലോ വെച്ചല്ലേ എല്ലാം മേടിച്ചെ അപ്പം അത്ര എ എമൗണ്ട് ഉള്ളോണ്ട് അത്രയും കിലോ വരുന്ന നമുക്ക് ഹോം ഡെലിവറി ഫ്രീയായിട്ട് ചെയ്തു പക്ഷേ ഇതിപ്പം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ ആ ഇത്ര അതായത് ആദ്യത്തെ ഇരുപത് ഇരുപത് കിലോമീറ്ററിന് നൂറ്റൻപത് രൂപ വെച്ച് വരും അപ്പോൾ ഏത് ആ ഇതിൻ്റെ കൂടെ പേ പേ ചെയ്യാം അല്ല അവിടെ വരുമ്പോൾ അവരുടെ കൊടു നോക്കാം അവർ കിലോമീറ്ററ് നോക്കിട്ട് അവരതിൻ്റെ റേറ്റ് പറയും അവരുടെ പേ ചെയ്താൽ മതി അന്ന് വന്ന സ്ഥലത്ത് തന്നെയാണോ അന്ന് കൊണ്ടു തന്ന സ്ഥലത്ത് തന്നെയാണോ അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു നാൽപ്പത് കിലോമീറ്റർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു മുന്നൂറ് രൂപ അടുത്ത് വരും എക്സ്ട്രാ പേമെൻ്റാ അപ്പം മുന്നൂറ് രൂപ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വിട്ടാൽ മതി അപ്പോൾ ഒരു കിലോ സാൽമൺ എണ്ണൂറ് പ്രോൺസ് വരുമ്പോക്കിൽ ആയിരത്തി ഇരുനൂറ് പിന്നെ ക്രാബ് വരുമ്പോത് അറുന്നൂറ്റി എൺപത് അങ്ങനെ അതും പ്ലസ് എക്സ്ട്രാ മുന്നൂറ് ആ വേറെ എന്തേലും വേണമായിരുന്നോ വേറെ നല്ല നല്ല ടൃുണ ഫിഷ് വന്നിട്ടുണ്ട് നല്ല ആണല്ലേ ആ ആ ഓക്കേ സാർ ഓക്കേ ടാങ്ക് യൂ